എനിക്ക് വാദ്യോപകരണങ്ങൾ അങ്ങനെ വായിക്കാൻ വലിയ രീതിയിലൊന്നും അറിയില്ല കാരണം കാരണമെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് എന്നെ അതിനൊന്നും അങ്ങനെ പഠിക്കാനൊന്നും വിട്ടിട്ടില്ല അപ്പോൾ പഠിക്കണം എന്നിങ്ങനെ പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് നമ്മൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ എനിക്ക് വായിക്കണം എന്ന് ആഗ്രഹമുള്ളത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് തബല എനിക്ക് വായിക്കാൻ ഭയങ്കര ആഗ്രഹം ഉള്ള ഒരു വാദ്യോപകരണമാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഇങ്ങനെ വായിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു രസമാണ് കാരണം നമ്മുടെ കൈ ഇങ്ങനെ നല്ല രീതിയില് ചലിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഡ്രംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊന്നും അങ്ങനെ എന്നെ വായിക്കാനൊന്നും അങ്ങനെ വിട്ടിട്ടില്ല അപ്പോൾ എനിക്ക് അത് വായിക്കാനും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻ ആയിട്ട് നമ്മുടെ അതായത് ഇപ്പോൾ ഒരു അടിപൊളി പാട്ട് തബലയെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഒരു നോർമൽ പാട്ടില് നമ്മൾക്കത് കേൾക്കാൻ പറ്റു ഇപ്പോൾ അടിപൊളി പാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡ്രംസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ അത് വായിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളത് അപ്പോൾ അതൊക്കെയാണ് എനിക്ക് മെയിൻ മെയിനായിട്ട് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നത് പക്ഷേ അതിനൊന്നും അങ്ങനെ സാധിച്ചിട്ടില്ല കാരണം നമ്മൾക്ക് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എൻ്റെ വീട്ടിൽ അങ്ങനെ സാമ്പത്തികമായിട്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനൊക്കെ വിടാൻ വേണ്ടിയിട്ട് ഭയങ്കര പൈസയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്റെ വീട്ടിൽ നിന്നൊന്നും അങ്ങനെ വിട്ടിട്ടില്ല അതാണ് ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും പഠിക്കുമായിരുന്നു